സാങ്കേതിക വിദ്യയുടെയും ഇന്റര്നെറ്റിന്റെയും വളര്ച്ചയ്ക്ക് ഇപ്പോൾ മലയാള ഭാഷയുടെ ഉപയോഗത്തില് വന്ന മാറ്റങ്ങള് എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഇപ്പോൾ എന്ന് വച്ചു കഴിഞ്ഞാ സാങ്കേതിക ഇത് അതായത് നമുക്ക് കമ്പ്യൂട്ടര് ആണെങ്കിലും മൊബൈലില് ആണെങ്കിലും കൂടുതല് നമ്മളെ അതായത് എന്ത് ഉപയോഗിക്കുക ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യന് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടുതലും മലയാളത്തില് അല്ല ഇംഗ്ലീഷിലാണ് വരിക ഇപ്പോ നമുക്കിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യണമെങ്കിലും കാര്യങ്ങള് അതായത് മെസ്സേജ് ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ മലയാളത്തില് അല്ല ഇപ്പൊ നമ്മൾ മംഗ്ലീഷ് എന്നുള്ള രീതിയിലാണ് അയയ്ക്കുക അപ്പൊ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് നമ്മൾ ഇപ്പോ മലയാളത്തില് അയക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചിലോ കാര്യങ്ങളോ പോലെയാണ് നമുക്കത് തോന്നുക പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇന്റര്നെറ്റ് അതായത് ഇന്റര്നെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് എന്തെങ്കിലും സെര്ച്ച് ചെയ്യണമെങ്കിലും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെങ്കില് ഒക്കെ നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുക മലയാളം അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മലയാള ഭാഷയുടെ ഉപയോഗം വളരെ കുറഞ്ഞു തുടങ്ങിയെന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്കിപ്പോൾ ഇന്റര്നെറ്റിന്റെ ഒന്നും വളര്ച്ചയ്ക്കൊപ്പം മലയാള ഭാഷയ്ക്ക് വളരാന് പറ്റുന്നില്ല കാരണം എന്തെന്ന് വച്ചാല് കൂടുതല് ഇന്റര്നെറ്റിലൊക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇപ്പൊ എന്തിനാണെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളഭാഷയുടെ ഉപയോഗത്തില് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്